ഹലോ പരിവാഹൻ സേവാ കേന്ദ്രമല്ലേ ഓക്കെ അവിടുത്തെ സാറാണോ സംസാരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു സെക്കൻഡ് ഹാൻഡ് കാര് വാങ്ങിയിരുന്നു അപ്പോള് അതിൻ്റെ രജിസ്ട്രേഷനു വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യമുള്ള രേഖകള് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്ര ദിവസമായിട്ടും ഒരു ഒരാഴ്ചയില് കൂടുതലായി ഇത്ര ദിവസമായിട്ട് നമുക്ക് അതിൻ്റെ ഒരു കാര്യവും പിന്നെ മെസ്സേജോ കോളോ ഒന്നും വന്നിട്ടില്ല ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതെന്തായിന്നു ഒന്നും നമുക്കറിയൻ സാധിക്കുന്നില്ല അതിനാവശ്യായിട്ടുള്ള നിങ്ങള് പറഞ്ഞ എല്ലാ രേഖകളും ഞാനവിടെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോള് അതിൻ്റെ രജിസ്ട്രേഷനു വേണ്ടിയിട്ടുള്ള അപേക്ഷ ആ പ്രോസസ്സായോ അല്ലെങ്കിലത് എവിടം വരെ എത്തി എന്തായി എന്നൊന്നും ഇതുവരെ ഒരു റിപ്പോർട്ടും എനിക്കു ലഭിച്ചിട്ടില്ല അപ്പോള് അതൊന്ന് എത്രയും പെട്ടെന്ന് അതൊന്നു ശരിയാക്കിത്തന്നാല് കൊള്ളാം അതില് എന്താണിത്ര ടൈമെന്തു കൊണ്ടാണു വരുന്നതെന്ന് എനിക്കറിയില്ല അപ്പോള് അതൊന്ന് എത്രയും പെട്ടെന്ന് ശരിയാക്കിത്തരാൻ പറ്റുമെന്നുണ്ടെങ്കില് ശരിയാക്കിത്തരിക നിങ്ങള് ചോദിച്ച എല്ലാ ഡോക്യുമെൻസും ഞാനവിടെ വച്ചിട്ടുണ്ട് ഓക്കെ